പാചകം സ്ത്രീകളുടെ മാത്രം തൊഴിലല്ല വീട്ടിലെ ആണുങ്ങൾക്കും പാചകം ചെയ്യുന്നതിന് കുഴപ്പം ഇല്ല അതായത് രണ്ട് പേരും കൂടെ ഒരു പിന്നെ ഒരു കോംപ്രമൈസിലെത്തി ചേർന്ന് ഒരു എത്തി ചേർന്ന് ആ പാചകം ചെയ്യുകയാണെങ്കില് നമുക്ക് സമയം ലാഭിക്കാം അതുപോലെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് നല്ല ഒരു നീക്ക് പോക്ക് ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പഴത്തെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുള്ള പഠിക്കാനുണ്ട് അപ്പം നമ്മൾ രണ്ട് കൂ പേരും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ പെട്ടന്ന് തീരുകയും ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ജോലിയുള്ള പാരൻറ്റ്സാണെങ്കില് അവർക്ക് ജോലിക്ക് ഒരു പോകുവാനും വീട്ടിലെ കാ ജോലികൾ വീട്ടിലെ ജോലികളൊക്കെ അടുക്കും ചിട്ടയും വഴി ചെയ്യാനും സാധിക്കുന്നു ഓരോ സ്ത്രീ മാത്രം ചെയ്ത് കഴിഞ്ഞാല് അതിലൊത്തിരി പോരായ്മകളുണ്ടാകും എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ജോലി ഉള്ളവർക്ക് സ്ത്രീകൾ തന്നെ ചെയ്ത് ഒരു ജോലിക്ക് പോകാൻ നമുക്കൊരിക്കലും പറ്റത്തില്ല പിൻപും പിന്ന ആണുങ്ങളും കൂടി നമ്മൾക്ക് സഹായത്തിനുണ്ടെങ്കിലേ ഒന്നി നിസ്സാരം നമ്മൾക്ക് ഒരു തേങ്ങ പൊതിക്കാനും അതുപോലെ തന്നെ നമുക്ക് തേങ്ങ ഒരൽപം ചിരണ്ടി തരാനും ആ സമയത്ത് പ പെണ്ണ് പിന്നെ സ്ത്രീകൾക്ക് പാത്രം കഴുകുകയും ആ മറ്റ് പലപല പല ജോലികളിൽ പോകാൻ സാധിക്കും